ആ വസ്ത്രങ്ങളൊക്കെ കഴുകാൻ എന്താണ് ചെയ്യുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം നമുക്കിവിടെ വീട്ടില് പിന്നെ ഞാന് അലക്കുകല്ലിലാണ് വാഷ് വസ്ത്രങ്ങളൊക്കെ ഞങ്ങള് കഴുകാറു അതായത് ആദ്യമൊക്കെ അങ്ങത്തന്നെയായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ആദ്യ കാലങ്ങളിലൊന്നും നമുക്കെങ്ങനെ വാഷിംഗ് മിഷിൻ കാര്യങ്ങളൊന്നുല്ല ഇപ്പോഴാണ് മക്കളൊക്കെ വാഷിങ് മിഷിനൊക്കെ അതായത് മേടിച്ചൊക്കെ തന്നത് അപ്പം നമ്മളുതന്നെ വീട്ടിൽ യൂസെയുന്നത് അതായത് ഓവര് അതായത് നമ്മളിപ്പോൾ വീട്ടിലിടുന്ന ഡ്രെസ്സുകളൊക്കെയാണ് കൂടുതലായിട്ടും വാഷിംഗ് മിഷിനില് കഴുകാറ് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് ചളിയുള്ള ഡ്രസ്സ് അതായത് നമ്മള് വല്ലാണ്ട് പണിയൊക്കെ എടുത്ത് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മിഷിനില് ഇട്ടിട്ടൊരു കാര്യമില്ല അത് ഇപ്പം വെറുതെ കറങ്ങുള്ളൂ ചെളിയൊന്നും പോവില്ല അപ്പോൾ നമ്മള് കൂടുതലായിട്ട് പിന്നെ വാഷിംഗ് മിഷിനിലിട്ടിട്ട് അങ്ങനെ അതായത് ഓവർ ചെളി അല്ലാത്ത ഡ്രെസ്സുകള് മാത്രമേ വാഷിംഗ് മിഷിനിലിട്ട് കഴുകാറുള്ളു ചളിയുള്ളത് വാഷിംഗ് മിഷിനിലിട്ട് കഴുകാറ് ഭയങ്കര വളരെ കുറവാണ് കൂടുതലും കല്ലില് അതായത് കോളറ് അതായത് ഷർട്ടിൻ്റെ കൊളറൊക്കെ ചെളിയൊക്കെ പിടിക്കും നമ്മള് കളിലൊരച്ചാണ് കഴുകാറ് ഞങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഓവര് വെള്ളോം കാര്യങ്ങളൊന്നും അതായത് അങ്ങനെ ചെലവാക്കാറുല്ല അപ്പൊ അധികം എല്ലാം പാകത്തിന് മാത്രാണ് വെള്ളൊക്കെ ചിലവാക്കാറുള്ളു